നമ്മുടെ വിപണിയില് ഒരുപാട് റെഡിമെയ്ഡ് വസ്ത്രങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് കൂടുതലും വാങ്ങാൻ ശ്രമിക്കുന്നത് കാരണം എന്ത് എന്ന് വെച്ചാൽ റെഡിമൈഡ് വസ്ത്രങ്ങൾ ഒരുപാട് വാങ്ങാൻ അല്ലെങ്കിൽ പെട്ടന്ന് തീരാവുന്ന പണിയാണ് കാരണം നമ്മൾ കടയിൽ പോയി പോകുന്നു റെഡിമൈഡ് വസ്ത്രങ്ങൾ വാങ്ങുന്നു വരുന്നു വേറെ പണിയൊന്നുമില്ല പക്ഷെ നമ്മൾ കൈകൊണ്ട് വാങ്ങുന്ന വസ്ത്രം അല്ലെങ്കിൽ നെയ്ത്ത്ക്കാരെകൊണ്ട് അടിപ്പിച്ചുള്ള വസ്ത്രങ്ങള് വാങ്ങുന്നവരും കുടുതലായിട്ട് ഉണ്ട് അങ്ങനെ വാങ്ങുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ അളവിന് അനുസരിച്ചുള്ള വസ്ത്രം ലഭിക്കും കറക്റ്റ് ഒര് സൈസിന് അനുസരിച്ചുള്ള ഇത് കിട്ടും അപ്പോൾ നമ്മള് തുണിയെടുത്ത് അടിയ്ക്കുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഡിസൈനും മറ്റു വർക്കുകളും ആ ഒരു വസ്ത്രത്തിൽ കൊണ്ട് വരാൻ സാധിക്കും പക്ഷെ എന്നാലും കൂടുതലും റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് തീർച്ചയായും റെഡിമെയ്ഡ് വസ്ത്രത്തിനും അതുപോലെ തന്നെ കൈകൊണ്ട് നിർമിച്ച വസ്ത്രങ്ങൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട് ആ ഒരു വ്യത്യാസമാണ് നമുക്ക് ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരോ മാറ്റങ്ങൾ നമുക്ക് നെയ്ത് അല്ലെങ്കിൽ നമുക്ക് തുണിയടിച്ച് ചെയ്യുന്നതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും കാണുബോൾ തന്നെ നമുക്ക് അറിയും കണ്ടാൽ അറിയും അത് തുണി നമുക്ക് തുണി കണ്ടാൽ അറിയാം നമുക്ക് അത് എങ്ങനെ റെഡിമെയ്ഡ് ആണോ അതുപോലെ കൈകൊണ്ട് നിർമിച്ച വസ്ത്രങ്ങളാണോ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസിലാകും ആ ഒരു വ്യത്യാസം എന്തായാലും തുണിയിലും തരത്തിലും ഉണ്ടാകും പിന്നെ നമുക്ക് ഒരു അപ്പോൾ നമ്മൾ കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ നോക്കുവാണെങ്കിൽ അവയ്ക്ക് ഒരുപാട് റേറ്റ് കൂടുതലാകും കാരണം നമ്മൾ മെറ്റീരിയൽ എടുത്ത് അല്ലെങ്കിൽ തുണിയെടുത്ത് അതിനെ മെറ്റീരിയൽ നമ്മൾ അതിനെ തുന്നൽ കൂലിയായിട്ട് അടിക്കുന്ന സമയത്ത് അങ്ങനെയും ഒരുപാട് തുണി ഒരുപാട് നമുക്ക് പൈസ ചിലവാണ് എന്നാലും നല്ലൊരു നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് കിട്ടുന്നത് നല്ല റിസൾട്ട് ആയിരിക്കും പക്ഷെ ഒരുപാട് കൈയിൽ നിന്ന് പൈസ പോകും ഇപ്പോൾ റെഡിമെയ്ഡ് ആണ് പക്ഷെ നമുക്ക് അങ്ങനെ ആ ഒരു വിലകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് തുണിയെടുക്കാവുന്നതാണ് റെഡിമെയ്ഡ് അതാണ് കൂടുതൽ ഉള്ളതും എന്നാലും ആളുകൾ ഇപ്പോഴും നെയ് നെയ്ത് കൊണ്ടുള്ള തുണിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ തുന്നിപ്പിച്ച് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെ ചെയ്യുബോഴാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു വസ്ത്രത്തിൻ്റെ ഭംഗി അറിയുന്നത് അങ്ങനെയാണ് പിന്നെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന സമയത് മറ്റ് പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ നമ്മള് കൈകൊണ്ട് നമ്മൾ നിർമ്മിച്ച തുണികൾക്ക് ആയിക്കോട്ടെ അത്യാവശ്യം അതിൻ്റെതായ ഗുണമേന്മയും കാര്യങ്ങളും ഉണ്ടാകും